ആ ഞാൻ സാധാരണ വായിക്കുന്നത് സന്ധ്യസമയത്ത് പ്രാർത്ഥിക്കാനായിട്ടിരിക്കും അപ്പം വേദപുസ്തകം വായിക്കും പാട്ടുപാടും പ്രാർത്ഥിക്കും അതിനുശേഷം ഞങ്ങൾക്ക് സഭയുടേതായിട്ടുള്ള കുറേ പുസ്തകങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പം വേദപുസ്തകം വായിക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്നൊന്ന് വായിക്കും പുതിയ നിയമത്തിൽ നിന്നൊന്നു വായിക്കും സങ്കീർത്തനമൊന്നു വായിക്കും അത് ഒക്കെയും വായിച്ച് ധ്യാനിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ അതിനായിട്ട് മെനക്കെടും പിന്നെ എനിക്ക് പാട്ടു പാടുന്ന ഭയങ്കര ഇഷ്ടമാണ് പാട്ടു പഠിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് കുറേ പാട്ടുകളൊക്കെ പുതുതായിട്ട് പുതുതായിട്ട് വരുന്ന പാട്ടുകളെല്ലാം പാടുകയും അത് ഞാൻ നമ്മൾ ഇതിനകത്ത് നോക്കി യൂറ്റൂബിനകത്ത് നോക്കി പാട്ടെടുത്ത് അതിൻ്റെ കൂടെയിരുന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യവാണ് പിന്നെ ഞങ്ങൾക്ക് പഠിക്കാനുളള ഉള്ളത് ഞങ്ങളുടെ സഭയുടെ സമാജത്തിൻ്റെ ഇതായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഓരോ വർഷവും പരീക്ഷ എക്സാം നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ഓരോ ബുക്സ് തരും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് വേദപുസ്തകത്തിൽ ഒരു അദ്ധ്യായം പിന്നെ പുതിയ നിയമത്തിലേ ഒരദ്ധ്യായം പുസ്തകമായ എബ്രഹായിൽ ലേഖനമാണ് പഠിക്കാനുള്ളത് അതിൽ നിന്നുള്ളൊരു പുസ്തകമാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അയിനാത്ത് പത്തദ്ധ്യായങ്ങളുണ്ട് അതിനകത്ത് മുഴുവൻ അത് പഠിച്ചിട്ട് അതിനകത്ത് കൊസ്റ്റ്യൻ ഏൻസറുകളെല്ലാം ചെയ്യാനുണ്ട് അപ്പം യൂറ്റൂബിനകത്ത് പ്രത്യേക ക്ലാസ്സുകളുണ്ട് അച്ഛൻ പ്രത്യേകമായിട്ട് ക്ലാസ്സുകളെടുക്കുന്ന അപ്പം ആ പുസ്തകം ഇരുന്നു വായിക്കും പഠിക്കും പിന്നെ അതിൻ്റേതായ കുറേ പിന്നേ വാക്യങ്ങൾ കാണാതെ പഠിക്കാനുണ്ട് കുറേ പാട്ടുകൾ പഠിക്കാനുണ്ട് കൊസ്റ്റ്യൻ ഏൻസറ് പിന്നെ പ്രാർത്ഥന പഠിക്കാറുണ്ട് ആ അങ്ങനെയെല്ലാം ഞങ്ങൾ ഇരുന്ന് ഒരു പതിനൊന്ന് മണിവരെ ഇരുന്ന് വായന കമ്പ്ലീറ്റ് ചെയ്തു കഴിഞ്ഞിട്ടേ കിടക്കത്തുള്ളു പിന്നെ നമുക്ക് സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പത്രം കിട്ടിയാൽ ആ പത്രം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടേ വേറെ ഏതൊരു കാര്യത്തിനായിട്ട് ഞാൻ പോകാറുള്ളൂ അതിന് ഇങ്ങനെ റിലീജ്യൻസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ഞാൻ കൂടുതലും വായിക്കുന്നത് അങ്ങനെ പോകുന്നു